എനിക്ക് ഇപ്പോൾ ഓണം ഓണമല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിന് പറ്റിയ ഒരു രണ്ട് സാരി വേണേനു രണ്ടു സെറ്റ് സാരി ആയിക്കോട്ടെ ആ ശരി ശരി ആ എനിക്ക് പിന്നെ ഗോൾഡൻ കളറു മതി കുറച്ചു ബോർഡർ ബോർഡറ് മാത്രം ഇതില്ലേ അധികം കളറ് വേണ്ട ആ ചെറിയ ബോർഡറുള്ളത് മതി ആ അതിൽനിന്ന് ഒന്നെടുത്തോ ആ അതെടുത്തോ അതെടുത്തോ അതെല്ലേ ആ ആ എന്നാൽ അതിൽനിന്നൊന്ന് എടുത്തോ ആ ശരി ആ വേറെ കുറച്ചു കളറുള്ളത് മതി ആ അതും ഒന്നെടുത്തോ

അതിന്റൊപ്പം ബ്ലൗസ് പീസില്ല അതെയോ എനിക്ക് ഗോൾഡൻ കളറുള്ളത് ബ്ലൗസ് പീസ് മുറിച്ചോ പിന്നെ എനിക്ക് രണ്ടു മൂന്നു നൈറ്റ് ഡ്രസ്സ് വേണം ആ പാന്റും ടോപ്പും ഉള്ളത് മതി ആ ശരി ആ നോക്കാം എനിക്ക് ലൈറ്റ് കളറു മതി പിന്ന രണ്ടു എക്സെല്ലും ഒരു എൻ്റെ മോൾക്ക് വേണ്ടിട്ടൊരു ചെറുതും വേണം വെള്ള ഷെയ്ഡ് വേണ്ട വേഗം ചെളി പറ്റും അതുകൊണ്ട് എനിക്ക് കുറച്ചു വേറെ കളറ് മതി ആ അതുമതി അതുമതി ആ ആ അതൊന്ന് എടുത്തോ ആ പിന്നെയൊന്ന് അതെടുത്തോ അതെ ആ അതും ഒന്നെടുത്തോ ഇനി എനിക്ക് അമ്മയ്ക്ക് വേണ്ടീട്ട് സിൽക്ക് കളറ് സാരി വേണം ആ ആ ശരി ആ ആ ഓ ശരി ശരി അധികം കളറ് വേണ്ടാട്ടാ സിൽക്ക് സാരിക്ക് ആ ഒരു മഞ്ഞയുമെടുത്തോ ഒരു ആ പച്ച ഷെയ്ഡുള്ളത് അതുമെടുത്തോ ആ ഓ

അതെല്ലേ എനിക്ക് ഇപ്പോൾ നോക്കിയാൽ സമയം തീരെയില്ല ഞാൻ അത് നാളെ വന്നു നോക്കിയാൽ പോരെ ഒന്ന് ആ ശരി ശരി എന്നാൽ ഇതിൻ്റെ ബില്ലൊന്ന് വേഗം ശരിയാക്കി തരുമോ ആ ഓ ശരിയെന്നാൽ ആ